എൻ്റെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ചെയറാണ് അപ്പം അതിൻ്റെ പോസിറ്റീവ് ആയിട്ട് പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ കൂടുതൽ എന്താ പറയുക ക്ഷീണിച്ചൊക്കെ പുറത്തൊക്കെ പോയിട്ട് ക്ഷീണിച്ചൊക്കെ വരികയാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ പണിയെടുത്തൊക്കെ കഴിഞ്ഞ് മടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയർ തന്നെയാണ് അപ്പോൾ ചെയറെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിനകത്തിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരാശ്വാസമാണ് കാലിനൊക്കെ നല്ല ഒരു ഇത് കിട്ടും സുഖം കിട്ടും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചെയറെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെയല്ല നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി മാറ്റി ഇടാനൊക്കെ സാ സാധിക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ചെയർ യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റിയൊക്കെ ചെയർ കൊണ്ടു പോയിട്ട് അവിടെയൊക്കെയിരുന്ന് വിശ്രമിക്കാനും പറ്റും അതൊക്കെ ചെയറിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് പിന്നെ ഇപ്പം ചെയർ തന്നെ പല താരത്തിലുണ്ട് നമുക്ക് ഫൈ എന്താ പറയുക ഫൈബറിൻ്റെ ചെയർ പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ ഇരുമ്പിൻ്റെ ആയിക്കോട്ടെ മരത്തിൻ്റെ ആയിക്കോട്ടെ കുഷ്യനുള്ള ടൈപ്പ് എല്ലാ ടൈപ്പ് ചെയറുകളും അവൈലബിൾ ആണ് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ചെയർ കൊണ്ട് തന്നെ ഇപ്പം ഏത് വീട്ടിൽ പൊയ്ക്കഴിഞ്ഞാലും നമുക്ക് ചെയറില്ലാത്ത വീടുകൾ കാണാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ചെയറിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ചെയർ കാണാൻ പറ്റും അത് എന്താ പറയുക ചെയറിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ്